കൃഷി നടാൻ നമ്മൾ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കണം കാലാവസ്ഥയുടെ രീതി അനുസരിച്ചാണ് നമ്മൾ കൃഷി നടത്തുന്നത് കൃഷി ചെയ്യുന്നത് തണുപ്പ് കാലത്താണ് കൃഷി കൂടുതലും വിത്തുകൾ പാകുന്നതിന് അനുയോജ്യമായ സമയം കൃഷി വിത്തുകൾ പ്രത്യേകമായ ഗ്രോ ബാഗുകളിൽ പാകിയാണ് കിളിപ്പിച്ച് മറ്റു സ്ഥലങ്ങളിൽ കൃഷിയിടത്ത് നടുന്നതാണ് ഇവിടുത്തെ രീതി ഗ്രോ ബാഗുകളിൽ ചാണകം മണ്ണ് ചകിരിച്ചോറ് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് നിറച്ച് അതിൽ വിത്തുകൾ പാകി നന്നായി നനച്ചു കൊടുത്ത് വെയിലോ മഴയോ ഏൽക്കാതെ സംരക്ഷിച്ച് വിത്തുകൾ മുളപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യാറുള്ള രീതി അതു പരമാവധി കാലാവസ്ഥയും മഞ്ഞ് മഞ്ഞാണ് മഞ്ഞിനെയോ തണുപ്പിനെയോ ബാധിക്കാതെ വേണം നമ്മളത് ചെയ്യാൻ വിത്തുകൾ പാകി കിളിർത്തതിനു ശേഷം കൃഷിയിടത്ത് നടുകയും അവിടെ കൃഷിക്ക് ചെടിക്ക് നനാ വെയിലോ മഴയോ ഏൽക്കാതെ വെയിലെന്നു പറഞ്ഞാൽ ആവശ്യത്തിന് വെയിൽ വെയിലേൽക്കണം അതിനു ചുവട്ടിൽ നന്നായി ചപ്പുകളോ ഒക്കെ വിതറി നന്നായി തണുപ്പ് നിലനിൽക്കുന്ന രീതിയിലാണ് കൃഷി ചെയ്യാറ്